ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റായിരുന്നു വാച്ചായിരുന്നു ശെരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് നല്ല ബ്രാൻഡെഡാണ് എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷെ ഭയങ്കര മോശമായിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ തന്നെയായിരുന്നില്ല കംപ്ലീറ്റിലി അത് ഒരു വേറെയൊരു പ്രൊഡക്റ്റായിരുന്നു അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടന്ന് പേർ കുറച്ച് എന്താ പറയാ കളറാകും ഡാമേജ് ഉള്ളതായതുകൊണ്ട് പെട്ടന്ന് അത് കംപ്ലൈന്റ്റ് വരാൻ തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി നല്ല വിലകൊടുത്ത് വാങ്ങിയതായിരുന്നു പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരു ഒരു ആഴ്ച രണ്ടാഴ്ചകൊണ്ട് ഞാൻ അത് കമ്പ്ലീറ്റായിട്ട് ഞാൻ അത് മാറ്റി ഞാൻ അത് ഉപയോഗം നിർത്തി അതിൻ്റെ